ആ അതെ പറഞ്ഞോളൂ എങ്ങനെയാണ് മൂന്നാറിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനത്തെ സ്ഥലങ്ങളാണ് വേണ്ടത് ആ ഓക്കെ അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ബങ്കീ ജംമ്പിങ് പിറ്റ് ഡ്രൈവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ നമുക്ക് മൂന്നാറിൽ വരുന്നത് ആ ആ സിപ്പ് ലൈൻ കൂടുതൽ തേയില തോട്ടം പിന്നെ കൂടുതൽ എന്താണ് പറയുക ഹിൽ ടോപ്പിൽ നിന്നൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ എങ്ങനെ ആ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിന് മേലെത്തന്നെ തന്നെ സിപ്പ് ലൈനിൽക്കൂടെ പോവാനുള്ളത് ഉണ്ട് മൂന്നൂറ് അഞ്ഞൂറ് ആ ഒരു ലെവൽ തന്നെയുണ്ട് റേറ്റ് ഇപ്പോൾ പേഴ്സണ് ഒരു ആൾക്കാണെങ്കിൽ നമ്മൾ അറുനൂറ്റമ്പത് വെച്ച് ചാർജ്ജ് ചെയ്യും സിപ്പ് ലൈനിൽ ഒരാൾക്ക് അതിപ്പോൾ സിപ്പ് ലൈനിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ച് നോക്കേണ്ടി വരും കാരണം അവർ ഇത് എന്താണ് പറയുക ബൾക്ക് ആയിട്ട് എടുത്താലും ഒരു പേഴ്സൺ ആയിട്ടാണ് ചാർജ്ജ് ചെയ്യുന്നത് അതാണ് പ്രശ്നം

ആ ഓക്കെ ക്യാബ് അറേഞ്ച് ചെയ്യണോ ആ ഓക്കെ ആ ഞങ്ങൾ എന്നാൽ ക്യാബ് എന്തെങ്കിലും വേണമെങ്കിൽ അറേഞ്ച് ചെയ്തുതരാം ഉണ്ട് സാർ ഇവിടെ മൂന്നാറിൽ ആവുമ്പോൾ ഒരുപാട് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെ വേണമല്ലേ ഓക്കെ ഞങ്ങൾ നോക്കിയിട്ട് ഈ മറ്റേ ഹട്ട് ട്രീ ഹട്ട് ഒക്കെ അങ്ങനത്തെ ഒക്കെ നോക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ പൂളും കാര്യവും എല്ലാം പ്രോവൈഡ് ചെയ്യുന്ന നല്ല റിസോർട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ അറേഞ്ച് ചെയ്തുതരാം ആ ഓക്കെ എന്നാൽ നാളെ വിളിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ

ഓക്കെ താങ്ക് യൂ എന്നാൽ